ആ എൻ്റെ പേര് സുഹൈർ എന്നാണ് ഞാൻ ടു വീലറിൻ്റ റെൻ്റിൻ്റെ ആവശ്യത്തിനു വേണ്ടി വിളിക്കുന്ന ആയിരുന്നു എനിക്ക് ബൈക്ക് ആണ് വേണ്ടത് ആ നാലു പേരാണ് ഉള്ളത് ആ ഒരുപോലത്തെ വണ്ടി കിട്ടാൻ ചാൻസ് ഉണ്ടോ ആ പിന്നെ വേറെയേത് വണ്ടിയാണ് ഉള്ളത് ആ ഓ ആ ഓക്കെ ഓക്കെ ആ ഓക്കെ എൻ്റെ റെൻ്റിൻ്റെ കാര്യങ്ങൾ ഒക്കെ എങ്ങനെയാണ് അത് ഒരു ദിവസത്തെ ഇത് അല്ലെ ആ ഓക്കെ ഓക്കെ ഓക്കെ ആ ഓക്കെ അപ്പം ഇനി സ്റ്റേറ്റ് വിട്ട് പുറത്ത് പോവാൻ പറ്റും അല്ലെ ആ നമ്മൾക്ക് പ്രൂഫ് എന്തെങ്കിലും എന്തൊക്കെയാണ് വേണ്ടി വരിക കോപ്പി കൊണ്ടു തന്നാലും മതി അല്ലെ അഡ്വാൻസ് പേയ്മെൻ്റ് ആയിരിക്കും അല്ലെ ആ ഓക്കെ ഓക്കെ ആ ഞാൻ ഏകദേശം ഒരു വൺ വീക്ക് ഉണ്ടാവും അതാണ് ആ ഓക്കെ ഓക്കെ ആ ഓക്കെ ആ ഓക്കെ ആ ഓക്കെ മനസ്സിലായി ആ ഓക്കെ എന്നാൽ ആ ഓക്കെ ഓക്കെ ആ ആയിക്കോട്ടെ ആ ഈ നമ്പറിലേക്ക് വിളിച്ചാൽ പോരെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഓക്കെ ഓക്കെ ഓക്കെ ഞാൻ നാളെയോ മറ്റന്നാളോ ആയിട്ട് വരുന്നുണ്ട് ഓക്കെ താങ്ക് യു